ഇന്ന് കർഷകർ മൃഗത്തിൻ്റെ മാലിന്യം സംസ്കരണത്തിന് അത്യാധുനിക രീതിയിലുള്ള കാര്യങ്ങളാണ് അവലംബിച്ചു വരുന്നത് പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇത് അത്യാധുനിക രീതിയിലുള്ള പല കാര്യങ്ങളും ഇന്ന് കർഷകർ ചെയ്യുന്നുണ്ട് അതിലുള്ള ഒന്നാണ് ബയോഗ്യാസ് ഈ മാലിന്യങ്ങളെല്ലാം ബയോഗ്യാസിൽ നിക്ഷേപിച്ച് അതിൽ നിന്നും വരുന്ന ഗ്യാസ് നമ്മുടെ വീടിലെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിനുശേഷം ലഭിക്കുന്ന സ്ലറി നമ്മൾക്ക് നമ്മുടെ വീട്ടിലെ കൃഷികൾക്ക് വേണ്ടി ഉപയോഗിക്കാം ഈ ഉപയോഗത്തോട് നമ്മൾക്ക് രാസവളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാം എന്നതാണ് വലിയൊരു പ്രത്യേകത അതുപോലെത്തന്നെ ഈ പച്ചക്കറി വേസ്റ്റും അതുപോലെത്തന്നെ ഈ കർഷകരുടെ മൃഗത്തിൻ്റെ മാലിന്യം ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷിക്ക് ഇന്ന് നാട്ടിൽ വളരെ അധികം പ്രചാരണമാണ് ഉള്ളത് രാസവളം ഉപയോഗിച്ചുള്ള കൃഷി രീതിയെല്ലാം ഇന്ന് മാറി ജൈവ വളവും അതുപോലെത്തന്നെ കൃഷിയും കൃഷിയിൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നൊരു രീതിയാണ് ഇന്ന് കണ്ടു വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൃഗത്തിൻ്റെ മാലിന്യം കൊണ്ട് നിർമ്മിക്കുന്ന വളങ്ങൾക്കാണ് ഏറ്റവും പ്രചാരമുള്ളതെന്ന് പറയേണ്ടതായിട്ടുണ്ട്